ഞാൻ ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ച് മേഖലയിൽ താമസിക്കുന്ന ഒരു കർഷകനാണ് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്നു പറയുന്നത് പന്ത്രണ്ടു മാസം ഉണ്ടെങ്കിലും പന്ത്രണ്ട് പല ഓരോ മാസവും കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരാറുണ്ട് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് കൃഷികളിലും വ്യത്യാസം വരുത്താറുണ്ട് ഹ്രസ്വകാല വിളകൾ കാലാവസ്ഥയെ കൂടുതൽ ആളുകളും ഇവിടെ മഴയെ ആശ്രയിച്ചാണ് കൃഷികൾ നടത്തുന്നത് അതുകൊണ്ട് ജലസേചന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും ജലം ലഭ്യത കുറവാണ് അതുകൊണ്ട് കാർഷിക മഴയെ ആശ്രയിച്ചാണ് കൂടുതലും കൃഷികളിവിടെ നടക്കുന്നത് അതിൽ ഹ്രസ്വകാല കൃഷികളിൽ വിളകൾ കപ്പ ഇഞ്ചി വാഴ പച്ചക്കറികൾ ഇതുപോലെയുള്ള കൃഷികൾ മഴക്കാലത്തെ ഇവിടെ മഴ തുടങ്ങുന്ന സമയത്ത് അതിവൃഷ്ടിയാണ് രാവിലെ ഫുൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നു പറയുന്നതുപോലെ മഴ ഇവിടെ പെയ്യാറുണ്ട് ആ കാലാവസ്ഥയിൽ അതുപോലെ വളരെ കൂടുതൽ മഴ വരണ സമയങ്ങളിൽ ഈ പച്ചക്കറിപോലുള്ള കൃഷികളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു ട്രിപ്പ് മഴ കഴിഞ്ഞു കഴിയുമ്പോൾ മഴയ്ക്കൊരു ശമനം ഒരു ചെറിയ ഒരു കുറവ് ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെയാണ് പച്ചക്കറികൾ കൃഷി ചെയ്യാറുള്ളത് അതുപോലെ കപ്പ കൃഷിയാണെങ്കിലും അത് പുതുമഴയൊക്കെ പെയ്തതിനുശേഷം ഒരു മണ്ണൊക്കെ നനഞ്ഞു കുതിർന്ന് കൃഷിയ്ക്ക് പാകമായി കഴിയുമ്പോൾ ആ സമയത്താണ് കപ്പ കപ്പപോലുള്ള കൃഷികൾ ചെയ്യാറുള്ളത് അത് മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പന്നെ ഒരു കുളർച്ച വളർച്ചയെത്തും അതിനുശേഷം മഴക്കാലത്ത് അതിനൊന്നും വലിയ വളർച്ചയൊന്നുമില്ല അങ്ങനെ മുരടിച്ചങ്ങ് നിൽക്കെ ഉള്ളതിനുശേഷം വീണ്ടും മഴയുടെ ആധിക്യം കുറഞ്ഞു കഴിയുമ്പോൾ അതു വീണ്ടും വളമൊക്കെ ഇട്ട് കൃഷി മുന്നോട്ടുപോയി അത് അടുത്ത മഴക്കാലത്തിനും അല്ല നല്ല വേനൽക്കാലത്ത് അത് കപ്പ വരച്ച വാട്ടയൊക്കെയാണ് കപ്പക്കൃഷി നടത്തുന്നത് അതുപോലെ വാഴക്കൃഷിയാണെങ്കിലും അത് മറ്റം പോലുള്ള പ്രദേശങ്ങളിൽ കുറച്ചൊക്കെ ലഘു മഴ ജലത്തിൻ്റെ ലഭ്യതയുള്ള സ്ഥലങ്ങളിലാണ് വാഴക്കൃഷി ചെയ്യാറുള്ളത് അവിടെ മഴ ഒക്കെ നട്ട് ചില വില വില കിട്ടുന്ന കൂടുതൽ കിട്ടുന്ന സമയങ്ങളിൽ വെട്ടത്തക്ക ഉൽപ്പന്ന കൃഷി വിളവെടുക്കത്തക്ക രീതിയിലുള്ള കൃഷികളാണ് മഴയുടെയൊക്കെ അതിൻ്റെ സീസൺ നോക്കിയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇഞ്ചിയാണെങ്കിൽ അത് ചെയ്യുന്നൊരു സമയമുണ്ട് അത് വേനൽമഴ അത് കപ്പ കൃഷിയെന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ പുതുമഴയൊക്കെ പെയ്തു കഴിഞ്ഞു പാകമായി കഴിയുമ്പോൾ കൃഷി ഇഞ്ചിയൊക്കെ നട്ട് പുകയൊക്കെ ഇട്ട് വലിയ മഴക്കാലം തുടങ്ങന്നതിനു മുമ്പുതന്നെ അതിൽ കുറേ കുറെ കുതിർന്ന് ഇഞ്ചിയെക്കാൾ ഇഞ്ചിക്ക് കൂടുതൽ മഴ ആവശ്യമുള്ള ഒരു കൃഷിയാണ് അതുകൊണ്ട് മഴക്കാലത്താണ് ഇത് വളരുന്നതും അതുകൊണ്ടത് ഇഞ്ചിക്കൃഷിക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥ ആണ് ഇവിടെ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഈ നേരത്തത്തെപ്പോലെ ഒരു ക്രമമായിട്ട് അല്ല മഴ കാലവർഷം മാറി മഴയൊക്കെ വരുന്ന ക്രമരഹിതമായിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടുതന്നെ കൃഷികൾക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട് കൃഷിയെ ആശ്രയിച്ച് മഴയെ ആശ്രയിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് ചിലപ്പം വരൾച്ച അതിരൂക്ഷമായ വരൾച്ച വരുമ്പോൾ അത് ഇതിൻ്റെകൂടെ കൂടുതലും ഇപ്പോൾ ഏലം ആണ് അതൊരു തന്നാണ്ട് കൃഷിയല്ല അത് സ്ഥിരവിളയാണ് അതും ഇവിടുത്തെ കാല മഴക്കാല മഴയാണ് ഏലത്തിനും പറ്റിയ ഒരു കാലാവസ്ഥയെങ്കിലും അത് ഒരു നവംബർ ഡിസംബർ ജനുവരിക്കുശേഷം ഇവിടെ കാല ജനുവരി മുതൽ വേനൽക്കാലം കൂടുതൽ ഉള്ളതുകൊണ്ട് ഒരു നനയ്ക്കാണ്ട് ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് അത് പോയി കഴിഞ്ഞവർഷമാണെങ്കിലും ആതിരൂക്ഷമായ വരൾച്ച കാരണം ഈ കൃഷികളൊക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീണ്ടും പുതിയ മഴക്കാലം തുടങ്ങിയപ്പോൾ വീണ്ടും കൃഷികൾ ചെയ്ത് ഇപ്പോഴുള്ളൊരു കൃഷികൾ ചെടികളൊക്കെ നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഈ വർഷം വീണ്ടും മഴകൾ ഒരു ഒരു വേനലിൻ്റെ ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല അതുപോലെ കൊടി ആണ് എങ്കിലും പറ്റിയ ഒരു കൃഷിയാണ് അപ്പം കൊടിക്ക് കേട് കൂടുതൽ ഉള്ളതുകൊണ്ട് എല്ലാവരൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പുളിക്കും വലിയ പ്രശ്നം ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് പിന്നെ കാപ്പി കാപ്പിക്കൃഷിയും ഇവിടെയും പണ്ടത്തെപ്പോലെ ഇല്ല ഉൽപന്നത്തിൻ്റെ വിള വിലക്കുറവുകളുടെയൊക്കെ അത് കൃഷിയൊക്കെ കുറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഏതായാലും അങ്ങനെ പലവിധ കൃഷികളാണ് ഇവിടുത്തെ കർഷകർ അനുവർത്തിക്കുന്നത്